ആലപ്പുഴ ജില്ലയിലെ പൊതുവെ വയോജനങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നം എന്നുപറയുമ്പോൾ ആശുപത്രിയിൽ തന്നാണെങ്കിലും ഒരു മെഡിസിൻ ആവശ്യങ്ങൾക്ക് ചെന്നാൽത്തന്നെ വയോജനങ്ങള് വളരെയേറെ ബുദ്ധിമുട്ടിയാണ് ചെയ്യുന്നത് ഇന്ന് അവര് നേരിടുന്നത് അവര് ഒരുപക്ഷെ ഈ ആശുപത്രിയിലോ മറ്റു സ്ഥലങ്ങളിലേക്ക് കൊണ്ടുവരാൻ പോലും ആരും ഇല്ലാത്തവരായി പലരും ഉണ്ട് ചിലരെ ഞാൻ ആശുപത്രിയിൽ പോകുന്ന സമയങ്ങളിൽ കാണാറുണ്ട് അവർക്ക് വേണ്ട മരുന്നുകള് വാങ്ങിക്കൊടുക്കുവാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം പലരിലും കാണുന്നുണ്ട് പിന്നെ കൃത്യമായി പറഞ്ഞാൽ വയോജനങ്ങൾക്ക് ചെറിയ എക്സർസൈസുകൾ ആണെങ്കിൽ പോലും അവർക്ക് വേണ്ട വിധത്തിൽ പറഞ്ഞുകൊടുക്കുവാനോ അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു തയ്യാറെടുപ്പുകളൊന്നുംതന്നെ ആലപ്പുഴ ജില്ലയുടെ പല ഭാഗങ്ങളിലും കണ്ടുവരാറില്ല അവർക്ക് കുറച്ചുകൂടെ അതിന് പ്രോത്സാഹനം ചെയ്തു കഴിഞ്ഞാൽ വയോജനങ്ങൾ അതിനുവേണ്ടി സന്നദ്ധത കാണിക്കുന്നതാണ് പക്ഷെ ഇന്നിവിടെ പൊതുവെ ആലപ്പുഴ ജില്ലയിൽ അങ്ങനെ കണ്ടുവരുന്നില്ല പ്രത്യേകിച്ച് എന്റെ നാടായ ഈ ഊരിക്കരി എന്നു പറയുന്ന രാമഗിരി പഞ്ചായത്തിലെ ഈ സ്ഥലത്ത് പൊതുവെ ഒരു നടത്തം പോലും വളരെ വിരളമായ ആൾക്കാർ മാത്രമേ പങ്കെടുക്കുന്നുള്ളു പക്ഷെ അവർക്ക് ഒരു ഗൈഡ് ഉണ്ടെങ്കിൽ തീർച്ചയായും അവർ മുന്നിലേക്ക് വരും അവരുടെ നമ്മുടെ എന്റെ അടുത്ത് തന്നെയാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഉള്ളത് അവിടെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ പലരും മാസ ഗുളികകളും ഒക്കെ വാങ്ങി കഴിക്കുന്നവരാണ് അവർക്ക് മാസംതോറും ഉള്ള ഗുളിക പോലും കൃത്യമായി വാങ്ങാന് വ വാങ്ങാൻ വരാൻ ഒന്ന് കൂട്ടിന് വരാനോ ഒന്നും ഇല്ലാത്ത സാഹചര്യങ്ങളാണ് അപ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ എന്താണ് ചെയ്യുക എന്നുള്ളത് കൂട്ടായി നമ്മള് ചിന്തിക്കേണ്ട ഒരു പ്രശ്നം ആണ് പ്രായ അൻപത് വയസ്സിന് മുകളിലായി കഴിയുമ്പോൾത്തന്നെ ഒറ്റപ്പെടലുകൾ നേരിടാൻ തുടങ്ങും ഈ സാഹചര്യത്തിൽ നമുക്ക് ഒരു പിന്തുണ കിട്ടിയാൽ എന്തേ എന്ന് ചിന്തിക്കും ഈ പിന്തുണ ഇല്ലെങ്കിൽ നമ്മള് വളരെ പുറകിലേക്ക് പോകുന്നതായിട്ടാണ് വയോജനങ്ങള് പലരും കാണുന്നത് പ്രധാനമായും അവർക്ക് കൂട്ടുകൾ ഇല്ല വീട്ടിൽ തന്നാണെങ്കിലും ഒറ്റപ്പെടലുകള് ഇതിൽനിന്ന് വ്യത്യസ്തമായി എക്സർസൈസുകളോ എന്തെങ്കിലും കാര്യങ്ങൾ അവരെ പറഞ്ഞ് അവരെ പഠിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ വയോജനങ്ങൾക്ക് കുറച്ച് നല്ല കാര്യങ്ങളാകും എന്ന് തോന്നുന്നു എന്റെ നാട്ടിൽത്തന്നെ വളരെ വയോജനങ്ങൾ ഉണ്ട് അവർക്ക് കൃത്യമായ ഭക്ഷണങ്ങൾ പോലും കൃത്യമായി കിട്ടൂന്നുണ്ടോ എന്നുള്ളതിനെ പറ്റി നമ്മള് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കൂടുതലേയും ഈ ഒറ്റപ്പെടലുകളാണ് ഇവരെ വളരെ വിഷാദപരമായി ചിന്തിക്കുന്നത് മക്കള് ചിലർക്ക് അടുത്തുണ്ട് ഉണ്ടെങ്കിൽപ്പോലും അവർക്ക് ഈ മക്കള് വളരെ ആക്റ്റീവ് അല്ലാത്തവരുണ്ട് എന്നാൽ വിദേശത്ത് പോയിരിക്കുന്ന മക്കൾ ഉണ്ട് അപ്പോൾ അവര് തീർത്തും ഒരു ഒറ്റപ്പെടലിൽ കഴിയുന്നവരാണ് അപ്പോൾ ആ ഒറ്റപ്പെടലിൽ നിന്നൊക്കെ വളരെ വ്യായാമങ്ങളൊക്കെ ഈ വയോജനങ്ങൾക്ക് ഉണ്ടാകുന്നത് എന്തുകൊണ്ടും നല്ലതാണെന്ന് തോന്നുന്നുണ്ട് വാർദ്ധക്യത്തിൽ പോയി എന്നുള്ള ഒരു മനസ്സിന്റെ തോന്നലാകാം കൂടുതൽ കൂടുതൽ അവർ ഡൗൺ ആകുകയും നിരന്തരം അവര് ഓരോരോ അസുഖങ്ങൾ ഉള്ളതായവർക്ക് തോന്നുക പലർക്കും ആശുപത്രിയിൽ ചെന്നാല്പ്പോലും അസുഖങ്ങള് കാണാറില്ല എന്നാലും അവര് ഇങ്ങനെ ഇതുമായി നിരന്തരം പോകുന്നത് കാണാം അപ്പോൾ കുറച്ച് ഇതിന്റെ ഒരു പ്രാഥമിക കാര്യം എന്ന് പറയുന്ന നല്ല രീതിയിലുള്ള എക്സർസൈസുകളൊക്കെ ചെയ്താൽ വയോജനങ്ങൾക്ക് അത് കുറച്ച് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു